രാജ്യത്തെ സ്കൂൾ വിദ്യാർത്ഥികളുടെ പോഷകാഹാരക്കുറവ് പരിഹരിയ്ക്കുന്നതിനു വേണ്ടി നമ്മുടെ പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ടുള്ള മന്ത്രി സഭ കഴിഞ്ഞ ബുധനാഴ്ച രൂപീകരിച്ച ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മൺ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ആരംഭിച്ച മിഡ് ഡേ മീൽ അതായത് വിദ്യാർത്ഥികൾക്ക് ചൂട് ഭക്ഷണം നൽകുന്ന മിഡ് ഡേ മീൽ എന്ന പരിപാടിയുടെ പുനർ നാമകരണമാണ് പ്രധാനമന്ത്രി പ്രധാൻ പോഷൺ ശക്തി നിർമ്മാൺ എന്നുള്ള പുതിയ പദ്ധതിയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വരെയുള്ള അഞ്ച് വർഷത്തേയ്ക്കുള്ള കാലയളവിൽ ഒന്നര ലക്ഷം കൂടി രൂപയാണ് ഈ കഴിഞ്ഞ ബജറ്റിൽ ഈ പ്രധാൻ മന്ത്രി പോഷൺ ശക്തി നിർമ്മാൺ പദ്ധതിയ്ക്കായി നീക്കി വെച്ചിട്ടുള്ളത് അതിൽ തന്നെ ഭക്ഷ്യ ധാന്യങ്ങൾക്കായി നാ ൽപ്പത്തഞ്ചായിരം കോടി രൂപയാണ് കേന്ദ്ര മന്ത്രി സഭ മാറ്റിവെച്ചിട്ടുള്ളത് കുട്ടികളിലുള്ള പോഷകാഹാരക്കുറവ് പരിഹരിച്ച് എല്ലാവരെയും പോഷകാഹാരം നൽകി അവർക്ക് കൃത്യമായ ഒരാരോഗ്യം നൽകാൻ വേണ്ടിയിട്ട് രാജ്യത്ത് നടപ്പാക്കുന്ന പദ്ധതിയാണ് പ്രധാൻമന്ത്രി പോഷൺ ശക്തി നിർമ്മാൺ പദ്ധതി